ഹലോ ആമസോൺ പിന്നെ ഓൺലൈൻ അല്ലേ ഞങ്ങൾ ഓൺലൈൻ വഴി ഒരു ഷർട്ട് വാങ്ങിയായിരുന്നു അത് അവിടെ ഇവിടെ കൊണ്ടു വന്നപ്പോൾ അതിന് ഇച്ചിരി ഡാമേജൊക്കെയുണ്ട് നാൽപ്പത്തി രണ്ട് സൈസുള്ള ഒരു ഷർട്ടാ മേടിച്ചത് എൻ്റെ ഹസ്ബൻറ്റിനു വേണ്ടീട്ടാണത് മേടിച്ചത് അത് മേടിച്ചു കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോളറിൻ്റെ പുറകിലൊരു കീറലു പോലേ തോന്നുന്നുണ്ട് പിന്നെ കൈക്കും ഫിറ്റാണ് അത് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് ഞങ്ങളിനി അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഓൺലൈൻ വഴി മേടിച്ചത് കാരണം ഞങ്ങൾ ഇനി അതെങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല പിന്നെ നാൽപ്പത്തി രണ്ട് സൈസ് ഷർട്ടായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇത് നാൽപ്പത് പോലും ഇല്ല ആളിട്ടിട്ട് ഇറുകിയിരിക്കുക അത്കാരണം എന്നാ ചെയ്യണം ഞങ്ങളിങ്ങനെ നിങ്ങളെ ആരെയാണ് ബന്ധപ്പെടെണ്ടത് വലിയ ആഗ്രഹത്തോടെ ഒരു ഷർട്ട് മേടിച്ചതാണ് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ തുണീം കളറുമെല്ലാം കറക്റ്റാ പക്ഷേ ഇതിങ്ങനെ കീറി ഇറുകിയിരിക്കുന്നത് കാരണം ഞങ്ങളത് പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഏത് നമ്പറിലാണ് വിളിക്കുന്നെ ഞങ്ങൾ അൻപത്തി ആറ് അൻപത്തി അഞ്ച് എന്ന ഐ ഡിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു മേടിച്ചത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കടയിൽ പോയി മേടിക്കുവായിരുന്നേൽ നമുക്ക് തിരിച്ചങ്ങ് കൊടുത്ത് കൊണ്ടു മാറാമായിരുന്നു ഇതിപ്പോൾ നമ്മളോൺലൈനായിട്ട് മേടിച്ചത് കാരണം ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് എങ്ങനെ ബന്ധപ്പെട്ടാണ് ഞങ്ങളിത് പിന്നെ കൊടുക്കേണ്ടത് ഇതിനു മുമ്പ് ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു അതുകാരണമാണ് പിന്നേം ഞാനിങ്ങനെ മേടിച്ചത് മുമ്പ് മോളും ഒക്കെ പിള്ളേരും ഓരോന്നുമൊക്കെ മേടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇപ്പം ഞാൻ കണ്ടോണ്ടിങ്ങനെ മേടിച്ചതാണ് അപ്പം അത് ഇങ്ങനെയായി ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യും ഇത് തിരിച്ചു തരുവോ എടുക്കയൊക്കെ ചെയ്യണ്ടേ പിന്നെ ഞാനിനി ഇപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഇത് എന്തിൻ്റെ ഇതിലാണ് ഞാൻ അയച്ചു തരേണ്ടത് അതിനെന്തുവാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരണം ഇപ്പോൾ ഞാനിത് മേടിച്ചത് കാരണം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എന്നെ വഴക്കാണ് പിന്നെ ഇത് എവിടെ കൊടുക്കണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അത് ഇടാൻ പറ്റത്തില്ല അത് തിരിച്ചു തന്നെ പറ്റത്തൊള്ളൂ പിന്നെ ഞാൻ നിങ്ങളുടെ ഡെലിവറി ബോയ്സിൻ്റെ നമ്പരു തന്നാലത് തിരിച്ചു തന്നാൽ മതിയോ അല്ലാതെ പിന്നെ ഞാൻ എനിക്കറിയത്തില്ല ഇതെന്തുവാ ചെയ്യേണ്ടിയതെന്ന് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുകേം ചെയ്തു പോയി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എങ്ങനാണ് ഒക്കുന്നത് പിന്നെ അത് ചെയ്യുമ്പം നല്ല സാധനം വേണ്ടേ തരാനായിട്ട് ഓൺലൈൻ വഴിയൊക്കെ തരുമ്പം നല്ല സാധനം അല്ലേ തരേണ്ടത് ആമസോണിലിങ്ങനെ ഒരു പറ്റിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല എന്തായാലും കൊള്ളാം നല്ല കാര്യം ഇത് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിയിച്ചു തരണം അത് ചെയ്യുമ്പോൾ ഇനി നിങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ നോക്കുകേം ഒക്കെ ചെയ്യണ്ടേ അല്ലാതെ ഞാനെന്നാ ചെയ്യാനാ ഞങ്ങളിനി ഇതി അതിനു വേണ്ടിയിട്ട് എന്തുവാണെന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം ഒരു ഷർട്ട് വലിയ ആഗ്രഹത്തോടെ മേടിച്ചതാണ് അത് ഇങ്ങനെയൊക്കെ ആകുകേം ചെയ്തു പിന്നെ ഇനി ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ സാധനം മേടിക്കേണ്ടതല്ലേ ആമസോണീന്നൊക്കെ ഓരോ സാധനം മീശോ മീശോയിലും അവിടുന്നൊക്കെ മേടിച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി ഇങ്ങനെ ഞങ്ങൾ ഒരു ഒരു പറ്റീരിൻ്റെ രീതിയായി പോയി ഈ സാധനം മേടിച്ചത് എന്തായാലും കൊള്ളാം ഇനി ഞാനിത് കൊണ്ട് പോയി മാറി മേടിക്കാനും എടുക്കാനുമൊക്കെ നടക്കണം പിന്നെ എന്തായാലും എനിക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരണം ഞാനിത് പിന്നെ അല്ലെങ്കിൽ ഡെലിവറി ബോയ്സാണെങ്കിൽ അവരുടെ നമ്പരാണെങ്കിലും എനിക്ക് തരണം അതനുസരിച്ച് വേണം എനിക്കിത് ചെയ്യാനായിട്ട് ഞാനെല്ലാവരുടേം വഴക്കും കേട്ട് ഇങ്ങനെ മേടിക്കുകേം ചെയ്ത് ആദ്യമായിട്ട് ചെയ്തേ ഒരു പരിപാടിയാണ് അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി